നമസ്കാരം ആ ഉണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്താണ് വേണ്ടത്

ഓക്കെ ഓക്കെ അപ്പം കാർ കാറിലാണ് പോവേണ്ടത് അല്ലേ ഓക്കെ ഇപ്പം നമുക്ക് ഇപ്പം ഊട്ടിക്ക് പോവുമ്പം ഇപ്പം കറക്റ്റ് തന്നെ സീസൺ ആണ് ഇപ്പം ഊട്ടി നല്ല ക്ലൈമ് ഒന്ന് നല്ല ക്ലൈമറ്റ് നല്ല തണുപ്പുള്ള ക്ലൈമറ്റ് ആണ് ഊട്ടിയിൽ പിന്നെ ഇപ്പോഴത്തെ സീസണിൽ ഓൾറെഡി പോകും അവിടെ കാണാൻ ഉള്ളൊരു മെയിൻ കാര്യം ഫ്ലവർ ഷോ ആണ് അത് ഫേമസ് ആയിട്ടുള്ള ഫ്ലവർ ഷോ ആണ് അത് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ന്യൂസ് ന്യൂസിലൊക്കെ കാണും ഊട്ടി ഫ്ലവർ ഷോ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അത് കാണാൻ തന്നെ ഒരുപാട് ഇന്ത്യക്ക് ഉള്ളിൽ നിന്നും പുറത്തുനിന്നും ഒരുപാട് ആൾക്കാർ വന്ന് കാണാറുണ്ട് ഫ്ളവർ ഷോ പിന്നെ പിന്ന ഊട്ടിയിൽ കാണാൻ ഉള്ളത് ബോട്ടാണിക്കൽ ഗാർഡൻ ഉണ്ട് ബോട്ടാണിക്കൽ ഗാർഡൻ പിന്നെ റോസ് ഗാർഡൻ ഉണ്ട് പിന്നെ അതിന്റെ പുറമെ നമുക്ക്

ഫിലിം ഷൂട്ടിംഗ് ആ ലേക്സ് ഉണ്ട് ബോട്ടിംഗ് ഒക്കെ ഉണ്ട് പിന്നെ ഫിലിം ഷൂട്ടിംഗ് പ്ലേസ് ഉണ്ട് ഹോർസ് റൈഡിംഗ് ഉണ്ട് ഹോർസ് റൈഡിംഗ് ഉണ്ട് പിന്നെ അവിടെ ഊട്ടിയിൽ തന്നെ ടൗണിൽ തന്നെ ഇൻ്റർനാഷണൽ ഹോർസ് ഹോർസ് റൈഡിംഗിന്റെ ഒരു കോംപെറ്റീഷൻ നടത്തുന്നുണ്ട് അതിന്റെ സെൻ്റർ കൂടെ ആണ് ഓ ആ ഒര് ഗ്രൌൻഡ് അവിടെ ഉണ്ട് ഹോർസ് റൈഡിംഗിന് വലിയ ഒരു ഗ്രൌൻഡ് അവിടെ ഉണ്ട് അതൊക്കെ നമുക്ക് കാണാൻ പറ്റും കാണാൻ പറ്റുന്നതാണ് നമുക്ക് മൂന്ന് ദിവസത്തെ യാത്ര ഉള്ളൂ അല്ലേ അത് താമസം താമസം ഉൾപ്പെടെ എല്ലാം അറേഞ്ച് ചെയ്യണം അല്ലെ ഓക്കെ ഓക്കെ ഭക്ഷണം നമുക്ക് എങ്ങനെ പുറത്തുനിന്ന് കഴിക്കാനാനോ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് സ്വയം വെച്ചിട്ട് കിച്ചൺ സെറ്റപ്പ് അവിടെ ഉണ്ട് നമുക്ക് ഓക്കെ നമുക്ക് രണ്ട് സ്ഥലം ഉണ്ട് നമ്മൾ ഇപ്പം നമ്മുടെ ഇതിൽ കോൾ പാക്കേജസിൽ രണ്ട് സൗകര്യം ചേർക്കും നമ്മൾ വേണം ഭക്ഷണം അവിടെ അറേഞ്ച് ചെയ്യാം നമുക്ക് പോയി കറങ്ങിയിട്ട് വരുമ്പോഴത്തേക്കും ഭക്ഷണം എല്ലാം അറേഞ്ച് ചെയ്യും അത് അല്ലെങ്കിൽ നമ്മൾ തന്നെ കുക്ക് ചെയ്തിട്ട് ഫാമിലി ആയിട്ട് ചെയ്യാം നമുക്ക് തന്നെ കുക്ക് ചെയ്യാൻ ഉള്ള സൗകര്യം ഉണ്ട് നമ്മൾ സാധനങ്ങൾ വാങ്ങിയാൽ മതിയെന്നേ ഉള്ളൂ ശരി ശരി ഓക്കെ ഓക്കെ അപ്പം നമുക്ക് അത് അതിന് ഇപ്പം കുഴപ്പം ഇല്ല അത് നല്ല കാര്യം നമുക്ക് ഭക്ഷണം ഒക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാം അതായത് കോട്ടേജസ് ഉണ്ട് നമുക്ക് നല്ല കോട്ടേജസ് ആണ് ഉള്ളത് ഒരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ കോട്ടേജസ് അത് ഒരു ഹില്ലിന്റെ മുകളിൽ ആണ് കുന്നുകൾ കുന്നുകൾ ഉള്ളത് ഹില്ലിന്റെ ഒരു മുകളിൽ ഇടയ്ക്കായി അതിന്റെ ബാൽക്കണിയിൽ നോക്കിയാൽ നല്ല വ്യൂ ആണ് കിട്ടുന്നത് നല്ല ആ നല്ല വ്യൂ ഉണ്ട് നല്ല വ്യൂ പറഞ്ഞാൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാട്ടും നല്ല ഒരു ഇതാണ് കാരണം ഇപ്പം സീസൺ പറഞ്ഞല്ലൊ സീസൺ ആയതുകൊണ്ട് നല്ല കോ മഞ്ഞ് ആയിരിക്കും നല്ല തണുപ്പും നല്ല മഞ്ഞും ആയിരിക്കും അത് ബാൽക്കണിയിൽനിന്ന് കാണുമ്പം നല്ല ഇത് ആയിരിക്കും ലേശം ഊട്ടിയുടെ കുറേ കുറേ ഭാഗങ്ങൾ ഒക്കെ കാണാൻ പറ്റും പിന്നെ അത് തുറന്നാൽ നമുക്ക് ട്രെയിൻ മറ്റേ ഊട്ടി ട്രെയിൻ ട്രെയിൻ ഉണ്ട് ട്രെയിനും ഉണ്ട് ആ ട്രെയിൻ ചില സ്ഥലങ്ങളിൽ അത്ര ഉണ്ടാവാറില്ല കാരണം അത് അവർക്ക് വയ്ക്കാറാ സ്ഥല പ്രശ്നം കൊണ്ട് മണ്ണ് ഇടിച്ചിൽ ഒക്കെ തന്നെ നമുക്ക് അത് നോക്കാം ആ സമയത്ത് ഇപ്പം ഉള്ള അത് നോക്കാം അത് നോക്കാം നാളെ ആ തീർച്ചയായിട്ടും നമുക്ക് അത് പാക്കേജ് പാക്കേജ് ആണ് പാക്കേജ് പറയുമ്പോൾ ആ പാക്കേജ് ആണ് പാക്കേജ് പറയുമ്പോൾ നമുക്ക് ഇത്ര രൂപ ആണ് നമുക്ക് വിത്ത് വിത്ത് ട്രാൻസ്പോർട്ടേഷൻ ഉൾപ്പെടെ അതായത് ട്രാൻസ്പോർട്ടേഷൻ താമസം ഭക്ഷണം എല്ലാം ഉൾപ്പെടെ ഒരു എമൗ ചാർജ് വരും ആ ചാർജ് ആണ് നമുക്ക് വരുക ഓ നമ്മൾ എത്തും ഞാൻ ആ ഡീറ്റെയിൽസ് ഞാൻ ആ മേഡത്തിൻ്റെ നമ്പർ തന്നാൽ ആ ഡീറ്റെയിൽസ് ഞാൻ

അയച്ചുതരാം അയച്ചുതരാം അയച്ചുതരാം

അത് വീക്കെൻഡിൽ പോവാം ആ വീക്കെൻഡ്സിൽ പോവുമ്പോൾ ഈ ഫ്ലവർ ഷോ ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല റഷ് ആയിരിക്കും നല്ല ട്രാഫിക്കും നല്ല റഷ് ആയിരിക്കും നമുക്ക് ഈ വീക്ക് നോർമൽ വർക്കിംഗ് ഡേയ്സിൽ പോവാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ അപ്പം കുറച്ച് കൂടി റഷ് കുറയും മെയിൻ അവിടെ ഈ ഫ്ലവർ ഷോ ആണ് അവിടെ പ്ലസ് അതായത് അവിടെ ഒരു ഇത് അത് ഈ ഫ്ലവർ ഷോ അതുകൊണ്ട് ടിക്കറ്റ്സിൽ എന്തായാലും നല്ല റഷ് ആയിരിക്കും റൂംസും ചെറിയ ബുദ്ധിമുട്ടാണ് സാറേ അപ്പം റൂംസ് കിട്ടണമെങ്കിൽ ആ ഡേറ്റ് നിങ്ങൾ ആ ഡേറ്റ് ഒന്ന് തന്നാൽ ഡേറ്റ് തന്നാൽ നമ്മൾ അത് ഓൾറെഡി ബുക്ക് ചെയ്യാൻ പറ്റും എപ്പോഴത്തേക്കാണ് പോവേണ്ടത് ഉദ്ദേശം വെച്ചാൽ നമ്മൾ അപ്പം തന്നെ കയ്യോടെ ബുക്ക് ചെയ്യാൻ പറ്റും

മതി മതി മതി മതി ഓക്കെ ശരി എന്നാൽ